ഹലോ ആ അതേ അതേ ഓ ഓക്കെ ഓക്കെ ഓ എവിടെയാണ് സാർ ആ ഓ ഓക്കേ

ഓക്കേ അന്ന് നമുക്ക് അവ ആ സാറ് പറഞ്ഞോ ഓ ഓക്കെ ഓക്കെ ഓക്കെ

ഓക്കേ നമ്മൾ ഇത് നമ്മളിത് ഞായറാഴ്ച്ച സണ്ടേ അല്ലേ നടത്തുന്നത് അപ്പോൾ അന്നവധീ ഉള്ളതല്ലേ അപ്പം എല്ലാവർക്കും നമുക്ക് മറ്റൊരു ദിവസം അവധീ നൽകുമോ ആ ഓക്കേ ഓക്കേ അന്ന് നമുക്ക് വരാൻ പറ്റിയില്ലെങ്കിലിത് വേറെ ദിവസം അവർക്കു വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കുന്നു അങ്ങനെവല്ലതുമുണ്ടോ ഓ ആ എങ്കിൽ ഞാൻ നേരേ എല്ലാവരെയും സാറിൻ്റടുത്തേക്കൊന്ന് കാണാൻ പറയട്ടെ ഓ ഓക്കേ നമ്മുടേ ഓക്കെ ഞാനെല്ലാവരോടും മാക്സിമം അന്നു തന്നെ പറഞ്ഞ് എല്ലാവരെയും ചോദിച്ചിട്ട് ഞാൻ അന്നു തന്നെ കൊണ്ടു വരാൻ ശ്രമിക്കാം സാർ